ആ ഞാൻ ഒരു ബ്ലൂ ടൂത്ത് വയർലസ് ഹെഡ് സെറ്റാണ് ഓർഡർ ചെയ്തത് വന്ന് കഴിഞ്ഞപ്പം പക്ഷേ അത് പാക്കിംഗ്ന്നും അത്ര നല്ലതല്ല പിന്നെ ഇത് ഹെഡ് ഫോൺ ഉപയോഗിച്ച് നോക്കിയപ്പോഴത്തേക്കും അതിന് ബ്ലൂ കണക്റ്റാകാൻ ഭയങ്കരം താമസം ആണ് കണക്റ്റായി വന്ന് കയ്യുമ്പത്തും പിന്നെ അത് സൗണ്ട് വളരെ കുറവാണ് പിന്നെ അത് ബിൽഡ് ക്വാളിറ്റി കുറവാണ് പിന്നെ നിങ്ങൾ പറഞ്ഞത് ഇരുപത്തി നാല് മണിക്കൂറ് ചാർജിംഗ് നിക്കുന്നാണ് പക്ഷേ ചാർജ് കുത്തി ഇട്ടിട്ട് ഒരു ഫുള്ളാക്കീട്ട് നമ്മൾ ഒരു യൂസ് ചെയ്യുമ്പത്തേക്കും ഒരു രണ്ട് മണിക്കൂറേ നിക്കുന്നുള്ളൂ ഓ വളരെ അധികം മോശം ഇതാണ് കാണാൻ നല്ലൊരു ഹെഡ് ഫോൺ മേടിച്ച് കഴിഞ്ഞപ്പത്തേക്കും അതിന് സൗണ്ട് ക്വാളിറ്റി ഇല്ല അതിന് ബിൽഡ് ക്വാളിറ്റി ഇല്ല ചാർജിംഗ് ടൈം ഇല്ല ഭയങ്കര ഒരു നെഗറ്റീവ് റെസ്പോൺസാണ് റിവ്യൂൽ പറഞ്ഞ പോലെ ഒന്നും അല്ല ഇത് എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടില്ല